നമ്മുടെ നാട്ടിലെ ശവസംസ്കാര ചടങ്ങ് എന്ന് പറയുമ്പോൾ അത് പല തരത്തിലുള്ള ശവസംസ്കാര ചടങ്ങുകളുണ്ട് അതിൽ ഏറ്റോം ഒന്നാണ് ഹിന്ദു മതത്തിലെ ശവസംസ്കാര ചടങ്ങ് അതായത് ആരെങ്കിലും മരിച്ച് കഴിഞ്ഞാൽ മരിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ എല്ലാരേം ക്ഷണിക്കും ശവ സംസ്കാരം ചെയ്യുന്ന് പറഞ്ഞിട്ട് എല്ലാരേം ക്ഷണിക്കുന്നുണ്ട് ക്ഷണിച്ച ശേഷം അതിൽ ബോഡി ഒന്നെങ്കിൽ ദർശനത്തിന് വെക്കും അവിടെ ദർശനത്തിന് വെച്ച് കഴിഞ്ഞിട്ട് എല്ലാരും ഒന്ന് ഫാമിലി മെമ്പേഴ്സിനേം നാട്ടുകാരേം എല്ലാരേം ക്ഷണിക്കും ക്ഷണിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് കഴിഞ്ഞ ശേഷം പിന്നെ എല്ലാവരും വരുമ്പോൾ അവർ പൂക്കൾ കൊണ്ട് വരും അതുപോലെതന്നെ ചന്ദനത്തിരി ഊത് പത്തി അതെല്ലാം കൊണ്ട് വരും പിന്നെ ഉച്ചകഴിഞ്ഞപ്പാട് ചന്ദനത്തിരി അതുപോലെ ഊത് പത്തി കത്തിച്ച് വെക്കും കത്തിച്ച് വെച്ച് ശേഷം എല്ലാവരും വന്ന് കാണും പിന്നെ അതുകഴിഞ്ഞിട്ട് എൽ മരിച്ച ബോഡി കുളുപ്പിക്കുന്ന ഒരു ഇ ചടങ്ങ് ഉണ്ട് കുളിപ്പിച്ച് അത് മഞ്ഞേൻ്റെ വെള്ളം വെള്ളം ചൂടാക്കീട്ട് മഞ്ഞേൻ്റെ വെള്ളം എല്ലാം ജ്യൂസാക്കീട്ട് കുളുപ്പിക്കും അത് ഫാമിലി മെമ്പേസ് തന്നെയാണ് കുളുപ്പിക്കുന്നത് അതുപോലെ ഉണ്ട് തന്നെ അതിൽ നാട്ടുക്കാരും സഹായിക്കാനുണ്ടാവും അതുകഴിഞ്ഞിട്ട് ആ ബോഡി കൊണ്ട് വന്നിട്ട് അല്ല ബോഡിക്ക് പൗഡറും സെൻറ്റും ഡ്രസ്സും ധരിപ്പിക്കുന്നൊരു ചടങ്ങുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ബോഡി കൊണ്ട് വന്നിട്ട് ദർശനത്തിന് വെക്കും ദർശനത്തിന് വ വെച്ച് കഴിഞ്ഞ് വെച്ച ശേഷം തുളസി ഇലയിൽ വെള്ളം വെക്കും ഒരു ചെമ്പിൽ കൊണ്ട് വന്നിട്ട് തുളസി ഇലയിൽ വെള്ളം വെക്കും ആ വെള്ളം വായിൽ ഇടാനുണ്ട് അപ്പം വന്ന ആൾക്കാർ ഒന്നൊന്നായിട്ട് ഒന്നൊന്നായിട്ട് വെള്ളം ഇടാൻ പറയും വെള്ളം കൊടുക്കുന്ന ചടങ്ങ്ന്നാണ് അതിനെ പറയുക അപ്പോൾ എല്ലാവരും വെള്ളം കൊടുത്ത് കഴിഞ്ഞ ശേഷം പിന്നെ മരിച്ച ബോഡീനെ ഏറ്റോം മരിച്ച ബോഡീനെ സ്മ കത്തിക്കൽ ചടങ്ങാണ് അതായത് കത്തിക്കലാണ് നമ്മുടെ ഹിന്ദു മതത്തിൽ ഏറ്റോം പ്രധാനം അപ്പം അത് ഒന്നെങ്കിൽ സ്വന്തം വളപ്പിലന്നായിരിക്കും അല്ലെങ്കിൽ അടുത്തുള്ള സ്മശാനത്തിൽ കൊണ്ട് പോയിട്ടായിട്ടാണ് കത്തിക്കുന്നത് അപ്പം കത്തിക്കുമ്പോൾ ആ മരിച്ച ബോഡീടെ അടുത്ത ബന്ധുവോ മകനോ മക മകനോ അനന്തരവനോ ആയിരിക്കും അത് കത്തിക്കാൻ ഉണ്ടാവുന്നെ കത്തിക്കാനെല്ലാം മുണ്ടുടുത്തിട്ട് ഷർട്ടു ഇടാൻ പാടുള്ളതല്ല ഷർട്ട് ഇടാൻ പാടില്ല അപ്പോൾ അത് സ്മശാനത്തിൽ കൊണ്ട് പോയിട്ട് അവിടെ കുറച്ച് ചടങ്ങുകളുണ്ടാവും അപ്പോൾ ആ ചടങ്ങിൽ മെയ്നായിട്ട് ചട്ട് ഒരു ചട്ടിയിൽ വെള്ളം കൊണ്ട് പോയിട്ട് വെക്കണ്ട ഇതുണ്ട് അത് കൊണ്ട് പോയിട്ട് അതിൽ പിന്നെ അതിൽ വിറക് വെച്ചിട്ട് കത്തിക്കുന്നതാണ് അധികോം ഉള്ളത് അപ്പം അത് കൊണ്ട് പോയിട്ട് ശ്മശാനത്തിൽ അവിടെ എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് അതിൽ അനന്തര അവകാശിയോ അല്ലാ മകനോ അതന്നെ ഇനി വരും അത് കത്തിക്കും കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കത്തി തീരുന്നത് വരെ വെയിറ്റ് ചെയ്യും പിന്നെ അതുപോലെതന്നെ അതിൻ്റെ അസ്ഥിയെടുക്കുന്ന ക ചാരം എടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ആ ചാ ആ ചാരം കൊണ്ട് പോയിട്ട് പിന്നെ അടിയന്തരത്തിൻ്റെ അന്നോ അല്ല ആ അടിയന്തരത്തിൻ്റെ അന്ന് അത് കടലിലോ പുഴയിലോ ഒഴുക്കുന്നൊരു ചടങ്ങ് കൂടി ഉണ്ട് മരിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ പതിമൂന്നിൻ്റെ അന്നാണ് ചടങ്ങുകൾ നടത്തുന്ന ആ ചടങ്ങിലേക്ക് എല്ലാ നാട്ടുകാരെയും ക്ഷണിക്കുന്നതോ വിളിക്കുന്നതോടൊപ്പം ഇത് ഫ ഭക്ഷണവും നൽകും കൊടുക്കുന്നുണ്ട് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും പിന്നെ വേറൊരു ചടങ്ങ് വരുന്നത് പതിനാറിൻ്റെ അന്നാണ് പതിനാറിൻ്റെ അന്ന് വീണ്ടും ബന്ധുക്കളെ എല്ലാം വീട്ടിലേക്ക് വിളിക്കും വിളിച്ചിട്ട് രാത്രി വൈകുന്നേരം ഒരു ചടങ്ങ് നടത്താനുണ്ട് ആ ചടങ്ങിൽ പിന്നെ വീണ്ടും ഭക്ഷണം കൊടുക്കുന്നതായിരിക്കും കൊടുക്കുന്നു പിന്നെ അതുപോലെതന്നെ മുസ്ലിം മതം പ്രകാരം ഇത് പള്ളികളിലാണ് അവർ ശവസംസ്കാരം നടത്തുന്നത് അപ്പം അവർ കത്തിക്കലില്ല ബോഡി കത്തിക്കലില്ല അവർ ഖബറിൽ അടക്കിയാണ് ചെയ്യുന്നത് ഇതേപോലെതന്നെ അവർ വേറൊരു ഖബറിൽ എടുത്തിട്ട് കുഴിച്ചിടുകയാണ് പതിവ് പള്ളികളിലുള്ള ക ഖബറിൽ കുഴിച്ചിടുന്നയാണ് ഉള്ളത് ഇതേപോലെ തന്നെയാണ് ക്രിസ്ത്യൻസിനും ശവസംസ്കാര ചടങ്ങുകൾ നടത്തുന്നത് അവരും പള്ളികളിൽ ഖബറിൽ കുഴിച്ചിടുന്നയാണ് പതിവ്